എനിക്ക് ഒരുപാട് ബൈക്കുകളോട് താൽപ്പര്യമുണ്ട് ഒരുപാട് നല്ല ബൈക്ക് നല്ല മോഡലുകളിപ്പോള് നമ്മുടെ രാജ്യത്തില് ഇപ്പോള് ട്രെൻറ്റിങ്ങായിട്ടുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റയൊരു ഭൂപ്രകൃതിയനുസരിച്ച് ഒരുപാട് സ്പോർട്സ് വെഹിക്കിളൊരുപാട് സ്പീഡിൽ പോവുന്ന പറ്റിയൊരു സാഹചര്യമല്ല നമ്മുടെ നാടുകളിലെന്നു പറയുന്നെ പക്ഷേ എന്നാൽ പോലും ഒരുപാട് വലിയ വലിയ ബ്രാന്ഡുകള് ബി എം ഡബ്ള്യു ഹയാബൂസ ഡൂക്ക് അതുപോലുള്ള ഒരുപാട് കമ്പനികൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ രാജ്യത്ത് പോകുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഏറ്റവുമധികം ട്രെൻറ്റായിട്ടുള്ളതും ഇപ്പോൾ യുവാക്കൾക്കിടയിലേറ്റവും കൂടുതലുള്ളത് എന്ന് വേണേ ഇപ്പോൾ ഒരുപാട് സ്പോർട്സ് ബൈക്കുകളാധിപത്യം സ്ഥാപിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ യുവാക്കള്ക്കിടയിലും ഏറ്റവും കൂടുതല് വീടുകളിലുപയോഗിക്കുന്നതുമായ ബൈക്കെന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് തന്നെയാണ് ബുള്ളറ്റേന്ന് പറയുന്ന ഒരു ഇതു തന്നെയാണ് കാരണം ബുള്ളറ്റ് അതിന്റെ ആ ഒരു അതിൻറ്റൊരു മേക്കിങ് കൊണ്ടും അല്ലെങ്കിലതിന്റെ ഒരു ലുക്ക് കൊണ്ടും പേരു പോലെ തന്നെയൊരു റോയലായിട്ടുള്ള ഒരു സംഭവം തന്നെയാണത്രയുമൊരു വലിയൊരു ബ്രാൻഡിന്റെ ഒരുപാട് മോഡലുകൾ ബൈക്കുകളിപ്പോള് ഈ നിരത്തിലുണ്ട് അപ്പോള് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കേറ്റവും ഫേവറേറ്റായിട്ടുട്ടുള്ളതും കംഫർട്ടായിട്ടെനിക്ക് തോന്നിയിട്ടുള്ളതും ബൈക്ക് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് തന്നെയാണ് അതിന്റെ ആ ഒരു എന്താണ് നമുക്ക് അതിലിരിക്കുമ്പോൾ തന്നെ ഒരു ഒരു റോയൽ എൻട്രി എന്ന് പറയുന്ന പോലെ തന്നെയാണപ്പോള് ഒരു റോയൽറ്റി കീപ്പെയ്യാനെപ്പോഴും ബൈക്കിത് ചെയ്യാറുണ്ട് പിന്നെ ലോകത്ത് പല സ്ഥലങ്ങളുണ്ട് ബൈക്കുകള് കൊണ്ടുപോവുന്നൊരുപാട് വലിയ വലിയ സ്ഥലങ്ങളൊരുപാട് ബൈക്കിങ്ങിന് പറ്റിയ ഇതുണ്ട് പക്ഷെ ഒരു ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഡെസ്റ്റിനേഷനെന്ന് പറയുന്നത് നമ്മുടെ മണാലി അല്ലെങ്കില് ഹിമാലയം തന്നെയാണ് കാരണം മണാലിയാണെങ്കിലും ഹിമാലയമാണെങ്കിലും അത് വളരെ എന്താണ് ഒരു ബുള്ളറ്റ് ഇത് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളറ്റ് യാത്രികനെ സംബന്ധിച്ചിടത്തോളം മണാലി ഹിമാലയൻ യാത്ര അത്ര വലിയ അനുഭൂതി നൽകുന്ന ഇതാണ് കാരണം ഏ ഏ ഏറ്റവും ടോപ്പിൽ നില്ക്കുന്ന കാശ്മീര് തൊട്ട് അല്ലെങ്കിലവടന്തൊട്ടുള്ള ഒരു ബൈക്ക് യാത്ര അത്ര അധികം അനുഭൂതി തരുന്നതാണ് കാരണം ഏകദേശം ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് മഞ്ഞ് തുൾ മഞ്ഞുരിഞ്ഞ് കിടക്കുന്ന ഹിമാലയങ്ങൾ കാണാനത്ര ഭംഗിയുള്ളതാണ് കാരണമൊരു ബൈക്ക് യാത്രികനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഒരെക്സ്പോഷര് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒരു ഹിമാലയൻ യാത്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സ്പോർട്സ് ബൈക്കുകളൊക്കെ എത്തിപ്പെടാൻ വളരേ കഷ്ടപ്പാടാണ്

ബൈക്ക് എന്ന് പറയുന്നത് അപ്പോള് ആ ഒരു ഏതൊരു ബൈക്ക് ഓടിക്കാനാഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുടുതലല്ലെങ്കിലേറ്റവും കൂടുതലാഗ്രഹിക്കുന്നത് എപ്പോഴും മണാലി കുളു മണാലി അല്ലെങ്കിൽ ഹിമാലയൻ യാത്രകളാണ് ആ ഒരു യാത്രകൾ കിട്ടുന്ന ആ ഒരു പ്രാധാന്യമല്ലെങ്കിലാ ഒരു ആ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോള് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റോയലെൻഫീൽഡിലുള്ള ആ ഒരു ആ ഒരു ഹിമാലയത്തിലേക്കുള്ള റൂട്ടുകളും അല്ലേ ഹിമാലയം എന്ന് പറയുന്നാ ഒരു ഡെസ്റ്റിനേഷനിലെത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഒരു സ്വപ്നം കാണുന്നതും ഇതും പിന്നെ റോയൽ എൻഫീൽഡിന്റെ പുതിയ പുതിയ മോഡലുകൾ വരുമ്പോൾ ആ ഒരു മോഡലുകൾ സ്വന്തമാക്കണമെന്നും ഞാനാഗ്രഹിക്കുന്നു